ഇന്ന് നമ്മളുണ്ടാക്കുന്ന ഏത് ഫുഡ് ആയാലും ഇപ്പോൾ മധുരമുള്ള ഫുഡ് ആണെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് എരിവ് ചേർത്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ മീൻസ് എരിവ് മീൻസ് എന്താ പറയുക നമ്മൾ എരിവ് കൂട്ടി കഴിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ നമ്മള് പായസം ഒക്കെ ഇടുക കഴിക്ക ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടാല് നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെതന്നെ ചിക്കൻ കറിയിലൊക്കെ ആണെങ്കിൽ നല്ല എരിവുള്ള ചിക്കൻ കറിയിലാണെങ്കിൽ ഒരു ഒരു നുള്ള് പഞ്ചസാര ഇടുമ്പം അതിൻ്റെ ടേസ്റ്റ് മാറും പിന്നെ നമ്മള് ചില എന്താ പറയുക ആൾക്കാര് മണത്ത് കഴിയുമ്പോൾ അതിന് ഉപ്പുണ്ടോ അങ്ങനെ എരിവുണ്ടോ അങ്ങനെ എന്തെങ്കിലും മാറ്റമുണ്ടോ അങ്ങനെ ഒക്കെ മനസ്സിലാവും നമ്മളിപ്പോൾ എന്തുണ്ടാക്കുവാണെങ്കിൽ ഇപ്പം ചിക്കൻ കറി വയ്ക്കുകയാണെങ്കിൽ തക്കാളിയൊക്കെ അരച്ച് ചേർക്കുകാണെങ്കിൽ അതിന് നല്ല കൊഴുപ്പ് കൂടും ആ അങ്ങനെ സാമ്പാറൊക്കെ വയ്ക്കുകയാണെങ്കിൽ പരിപ്പൊക്കെ ആദ്യം വേവിച്ചിട്ട് പിന്നെ കഷ്ണം വേവിക്കണം അപ്പം എന്താ പറയുക നല്ല സാമ്പാർ നല്ല കൊഴുപ്പായിരിക്കും പിന്നെ നമ്മള് ഓരോ തോരൻ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മള് ശ്രദ്ധിക്കണം കാരണം ചിലതിൽ വെള്ളമൊഴിക്കണം ചിലത് ആവിയിൽ വേവിക്കണം അങ്ങനെയൊക്കെ ഇപ്പം സ്വീറ്റ്സ് ഐസം ഐറ്റംസെക്കെയാണെങ്കില് നമ്മള് ഒരുപാട് മധുരം ചേർക്കാണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അപ്പം മത്ത് പിടിക്കുക തലയ്ക്ക് മത്തി പിടിക്കാണ്ട് രീതിയില് കഴിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നോക്കുന്നത്